ഹലോ മലബാർ റസ്റ്റോറന്റ് ഉണ്ടല്ലോ പിടിയും കോഴിയും ഉണ്ടല്ലാ

ആ എത്ര പേരുണ്ടാവും ഒരു നൂറ്ററുപത് പേരുടെ ഭക്ഷണം എടുക്കാമല്ലേ ഓക്കെ ഓക്കെ അപ്പം തന്നെ ഉണ്ടാക്കാം അപ്പം തന്നെ ഉണ്ടാക്കി കൊണ്ടുവരുമോ ഇത് രാവിലെയാണോ രാവിലത്തേക്കാണോ രാത്രിയത്തേക്കാണോ ഓക്കെ അതാ പറഞ്ഞത് രാവിലത്തേക്കാണെങ്കിൽ ഓവറ് ചൂട് പറ്റൂല്ലല്ലോ അതെ അതാ പറഞ്ഞത് ഒരു രാത്രിയാകുമ്പോൾ ഉണ്ടാക്കീട്ട് അപ്പം തന്നെ വന്നാൽ മതിയല്ലോ എത്ര മണിക്കാണ് ഫങ്ക്ഷൻ ആ എന്നാന്ന് ശരിക്കും പരിപാടി പിറന്നാളാണോ ഓക്കെ അപ്പം എപ്പോഴത്തേക്കാണ് ഇത് വേണ്ടത് ഓക്കെ ഓക്കെ മറ്റേ വിളമ്പാൻ ഞമ്മളെ ആൾ വേണോ ഓക്കെ ആ അതുപോലെത്തന്നെ ഈ മേശ ടേബിൾസൊക്കെയോ ഇല്ല ഇല്ല ഇല്ല എല്ലാം കൂടി തിരിച്ച് തരും ഓക്കെ ഓക്കെ അതേപോലത്തന്നെ ബിരിയാണി ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും വേറെന്തെങ്കിലും സദ്യ കഴിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ആ അതേപോലെത്തന്നെ ഇന്ന് കേയ്ക്കോ അങ്ങനെ എന്തെങ്കിലും മുറിക്കുന്നുണ്ടോ

അന്ന് മുറിക്കണം ഓക്കെ അന്നത്തേക്ക് ഇപ്പം പറയണം ഏതാ ഉണ്ടാക്കേണ്ടതെന്ന് വച്ചാലല്ലേ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ ആ ബ്ലാക്ക് ഫോറസ്റ്റ് എത്ര വേണ്ടി വരും ഓക്കെ പത്ത് കിലോ പിന്നെ കല്യാണത്തിന് ഉച്ചയ്ക്ക് സദ്യക്ക് വിളമ്പുമ്പോൾ സദ്യയല്ലേ ഉച്ചയ്ക്ക് സദ്യ വേണ്ടല്ലോ വെജ് കഴിക്കുന്നവരും ഉണ്ടാവുമല്ലോ ആ എന്തായാലും ഒരു ഐസ്ക്രീമും ആക്കാം അല്ലേ ആ അഞ്ച് ഉർപ്യേന്റെ ആ ഉണ്ട് അഞ്ചിന്റെയും ഉണ്ട് പത്തിന്റെയും ഉണ്ട് ആ മൂന്നൂറെണ്ണം ഓക്കെ പിന്നെ ലൈമോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ അല്ല നമ്മൾ ഓക്കെ ഓക്കെ അപ്പം കൈ കഴുകാൻ എല്ലാത്തിനും ഉള്ള സാധനങ്ങൾ കൊണ്ടുവരണം അല്ലേ അപ്പം എന്നത്തേക്കാണെന്ന് പറയുകയാണെങ്കിൽ ഗുണമായിരുന്നു സെറ്റ് ചെയ്യണ്ടേ അടുത്താഴ്ച്ച അപ്പം ശനി ശനിയാഴ്ച്ച വന്ന് സെറ്റ് ചെയ്യാം

അതെ ഒരു വെള്ളിയാഴ്ച്ച വന്നിട്ട് ഇട്ടാൽ പോരെ ആ ബുധനാഴ്ച്ചയാ ബുധനാഴ്ച്ച ഓക്കെ ശരി ഞാൻ ഈ നമ്പറിൽ വിളിക്കാം ഈ നമ്പറിൽ വിളിക്കാം